കൃഷി ഞാൻ ചെയ്യുന്നത് രാവിലെ എൻ്റെ തോട്ടത്തിലേക്കിറങ്ങി പാവയ്ക്ക കൃഷി വെണ്ടയ്ക്ക കൃഷി അങ്ങനെ ഉള്ള മറ്റുള്ള കൃഷികളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് വാഴ കൃഷി ചെയ്യുന്നുണ്ട് രാവിലെ എഴുന്നേറ്റാലുടനെ തന്നെ ഞാൻ കൃഷി ഇടങ്ങളിലേക്കാണ് പോകുന്നത് അവിടെ കാടുകളൊക്കെ പുല്ലൊക്കെ കിളിർത്തിട്ടുണ്ടേൽ അതെല്ലാം പറിച്ച് കളഞ്ഞ് അവിടത്തേക്ക് ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കൃഷി എനിക്ക് ഫലപ്രദമായ നല്ല കൃഷി നന്നായിട്ട് ചെയ്യാനെനിക്ക് പറ്റുന്നുണ്ട് ഞാനത് വിൽക്കുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശെ ഞങ്ങൾക്ക് പള്ളി മുഖേന കച്ചവടം ചെയ്യാൻ പറ്റുന്നുണ്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കൃഷിയിലൂടെ നല്ല വിളവാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ കൃഷി ചെയ്യുമ്പൊഴേക്കും അതിന് വേണ്ട വളങ്ങളും മറ്റുള്ള കാര്യങ്ങളുമെല്ലാം അതാത് സമയത്ത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ കുറേ കൃഷിയിലൂടെ ഒത്തിരി പ്രയോജന ഉപയോഗപ്രദമായ രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ അത് പറ്റുന്നുണ്ട് നല്ല വിളവുകളാണ് ഞങ്ങൾക്ക് അതിലൂടെ കിട്ടുന്നത് പിന്നെ കൃഷി ചെയ്യുന്നത് കൂടി ഞങ്ങൾക്ക് എന്താണ് ശരീരത്തിനാണെങ്കിലും ഒത്തിരി ഉന്മേഷങ്ങൾ മനസ്സിനാണെങ്കിലും അതിലേക്കിറങ്ങി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അതിന്റേതായിട്ടുള്ള നല്ല നല്ല നല്ല പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് കാഴ്ച്ച വെക്കാൻ പറ്റുന്നുണ്ട് അത് കൃഷി പരമായിട്ട് നമുക്ക് യാതൊരു വിധ ദോഷങ്ങളുമുണ്ടാകുന്നില്ല ലാഭങ്ങളല്ലാതെ ഒന്നും നമ്മുടെ ആരോഗ്യപരമായിട്ട് നമുക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളാണ് അതിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രതേകിച്ചും കൃഷി ഞാൻ കൂടുതൽ ചെയ്യുന്നത് പാവയ്ക്ക കൃഷി വെണ്ടയ്ക്ക കൃഷി പയറുകൾ അതിലേക്ക് കീടങ്ങൾ വരുമ്പഴേക്കും നമ്മൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അത് നമുക്ക് നന്നായിട്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്കത് പ്രയോജനകരമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല വിളവുകൾ കിട്ടുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മുതൽ മുതൽ മുതൽ മുടക്ക്